ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഒന്ന് നാല് അഞ്ച് രണ്ടായിരത്തി ആറ് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പത്തൊൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഒന്ന് പതിനാല് അഞ്ച് രണ്ടായിരത്തി ആറ്